ഹലോ ആ ട്യൂഷൻ ടീച്ചർ അനിതയല്ലേ ആ ഞാൻ സൗമ്യയായിരുന്നു എന്നാന്ന് വെച്ചാൽ ആ ഇപ്പം നമ്മുടെ സിലബസൊക്കെ മാറ്റിയല്ലോ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഭയങ്കര ഹെക്റ്റിയ്ക്കാണ് വർക്കൊക്കെ ഭയങ്കര ഹെക്റ്റിയ്ക്കാണ് ഒരു വിധത്തിലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല അതേ പിള്ളേർ ചോദിച്ചിട്ട് നമുക്ക് സംശയങ്ങൾ പോലും ക്ലിയറേ ചെയ്ത് കൊടുക്കാൻ പറ്റണില്ല അതെ അതെ അതെ അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം ഞാൻ നേരിടുന്ന ഏറ്റോം വലിയ പ്രശ്നം എന്ന് പറയണത് ഇത് എനിക്ക് എന്നാ അനിതയുടെ ട്യൂഷൻ സെൻ്ററീന്നല്ല എനിക്കീ ഒരു ഇത് കിട്ടിയത് എന്നോട് പിള്ളേർ പറയുന്നുണ്ട് ട്യൂഷനീന്ന് വേറേ രീതീലാണ് പഠിപ്പിക്കുന്നത് സ്കൂൾള്ല് വേറെ രീതിയാണ് പഠിപ്പിക്കണത് അപ്പം രണ്ടും കൂടവർക്കഡ്ജസ്റ്റാവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് തന്നല്ല ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കുറച്ചൂടെ സ്റ്റാൻറ്റേടാക്ക്യല്ലോ അതെ അതെ അതെ അതെ മാക്സ്സ് നമുക്കെങ്ങനാണേലും ആൻസറ് കിട്ടിയാൽ മതി പക്ഷേ നമ്മൾ ഇപ്പം പരീക്ഷക്ക് എഴുതുന്ന സമയത്ത് ഇപ്പം നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണെങ്കിൽ ഓരോ ഇക്ക്വേഷനും ഓരോ സ്റ്റെപ്പെഴ്ത്ന്നേയ്നും ഓരോരോ മാർക്ക് വെച്ച് നമ്മൾ കൊടുക്കണുണ്ട് അപ്പോൾ അതക്കെയാണ് വിഷയം വരുന്നത് അതെ അതെ അതെ അതെ അതെ അത് എന്നാൽ അനിത കുറച്ചൂടെ ഞാനങ്ങനെ ഇയ്യോ ഞാനങ്ങനെ പറഞ്ഞ് തരുവൊന്നുവാന്ന് വിചാരിക്കരുത് ആ ആ ഇപ്പം ഞങ്ങളുടെ ഞങ്ങൾ പഠിപ്പിക്കുന്ന അതേ മെത്തേട് തന്നെ പഠിപ്പിക്കുമായിരുന്നെങ്കിൽ പിള്ളേർക്ക് കുറച്ചുടെ എളുപ്പമായിരുന്നേനെ

അതേയതേയതേ എങ്ങനാണെങ്കിലും അതെ അതെ എങ്ങനാണേലും പിള്ളേർ പഠിച്ച് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇപ്പം അവർ ചിലപ്പം ക്ലാസിൽ മിക്കപ്പോഴും പിള്ളേരൊന്നും ശ്രദ്ധിക്കാറില്ല ട്യൂഷനുണ്ടല്ലോ ട്യൂഷനിൽ പഠിപ്പിക്കുന്നത് മതിയല്ലോ എന്നുള്ള രീതീലാണ് പിള്ളേർ മിക്കവരും ഇരിക്കണത് അപ്പം നമുക്ക് ഇപ്പം അവർ ചെയ്യണ പല സ്റ്റെപ്പുമിപ്പം മിക്കപിള്ളേരും അവസാനം ആൻസറ് മാത്രമേ എഴുതി വെക്കുന്നുള്ളു അപ്പം അതൊക്കെയാണൊരു വിഷയമായിട്ട് വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം വേറൊന്നുമില്ല കേട്ടോ ഓക്കെ ഓക്കെ അനിത അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത് കേട്ടോ ഓക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ ഓക്കെ ആ സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഓക്കെ ഓക്കെ ബൈ ബൈ ഓക്കെ